ഗോൾഡ് ലോൺ മാനേജർ ആണോ എനിക്ക് പിന്നെ അതായത് എൻ്റെ കുട്ടി ഇപ്പോൾ പ്ലസ്ടു കഴിഞ്ഞിരിക്കുവാണേ അപ്പം അവൾക്ക് നഴ്സിംഗിന് പോകാൻ വേണ്ടി കുറച്ച് ലോൺ എടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പം നമുക്ക് കുറച്ച് ഗോൾഡ് ഉണ്ട് കയ്യിൽ അപ്പം ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുക്കാൻ ആയിരുന്നു ആ അവക്കിപ്പം പിന്നെ ഹോസ്റ്റൽ ഫീസ്ന്ന് പറഞ്ഞാൽ മാസം ആറായിരത്തി അഞ്ഞൂറു രൂപ വരും അപ്പം മൂന്ന് മാസത്തേക്ക് മൂന്നുവർഷത്തേക്കുള്ളതാ അപ്പോൾ ബി എസ് സി ആണ് പഠിക്കുന്നത് അപ്പോൾ പിന്നെ മൂന്നുമാസത്തേക്ക് ആവുമ്പോൾ അല്ല മൂന്ന് വർഷത്തേക്കാണ് അപ്പോൾ മൂന്നുവർഷത്തേക്ക് മൂന്നുലക്ഷം രൂപയാണ് പറഞ്ഞത് പിന്നെ നമുക്ക് രണ്ട് ലക്ഷോ അപ്പോൾ ആറ് ലക്ഷം ടോട്ടല് ആറ് ലക്ഷം എടുക്കാൻന്ന് വിചാരിച്ചിട്ട്

നമ്മുടെ അടുത്ത് പിന്നെ ഒരു പന്ത്രണ്ട് പവൻ്റെ അടുത്ത് ഉണ്ടാവും അതെ

ആ ഓക്കേ സ്ഥലം നമുക്ക് ഒരേക്കർ സ്ഥലം ഉള്ളൂ

അല്ല നിങ്ങൾ സ്ഥലത്തിൻറെ സ്ഥലത്തിൻറെ ഇതൊക്കെ നോക്കിയിട്ടല്ലേ അപ്പോൾ നമ്മളത് കുറച്ച് ഉള്ളിലോട്ടാ അപ്പോൾ അത്ര റൈറ്റ് കിട്ടോ

ഓക്കേ

ഓക്കേ എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ നികുതി ശീട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് വരാം നിങ്ങളതൊന്ന് നോക്കിയൊന്ന് ഡീറ്റയിലായി പറഞ്ഞു തരാമോ നമ്മൾ തിങ്കളാഴ്ച വരാം എന്നാൽ ആ ഓക്കേ ആ ഓക്കേ ഓക്കേ